തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണ വിഭാഗങ്ങൾക്ക് ഇതിന് നല്ലൊരു പങ്കുണ്ട് കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര ആധുനിക സൗകര്യങ്ങളില്ല പെട്ടെന്ന് എന്തേലും സംഭവിച്ച് രോഗികളെ കൊണ്ടുവന്നാൽ നമ്മൾ ആ മറ്റുള്ള ജില്ലകളിലേക്ക് പോകേണ്ടതു വരുന്നു അത് ദൂരം ഒരുപാടായതുംകൊണ്ട് അവിടെ എത്തുന്നതിനു മുൻപേ രോഗി മരിക്കുകയോ അല്ലെങ്കിൽ തീരെ വയ്യാണ്ട് അവസ്ഥയിലേക്ക് ആകുന്നു പിന്നെ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അപ്പം നമ്മുടെ ജില്ലയിൽതന്നെ നമ്മുടെ പട്ടണത്തിൽതന്നെ ഒരുപാട് നല്ല ഡോക്ടറുമാർ നല്ല നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളൊക്കെ വരേണ്ടതുണ്ട് അതിന് നമ്മുടെ നമ്മുടെ ഇവിടത്തെ ആൾക്കാരും ആരോഗ്യ സംരക്ഷണ ആൾക്കാരും പാർട്ടിക്കാരും എല്ലാം വിചാരിച്ച് ഒരുപാടു കാര്യങ്ങൾ നടത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാകില്ല തീരെ സീരിയസ്സായ നിലയിലേക്ക് പോകുകയില്ല അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ ജനങ്ങളേയും നമ്മളും എല്ലാം കൂട്ടിച്ചേർത്ത് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്